മറ്റു ഗ്രഹങ്ങളിൽ ബാഹ്യ ജീവനുണ്ടെന്നു തന്നെയാണ് ഞാനും കരുതുന്നത് കാരണം നമുക്കാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഈ ടെക്നോളജി അല്ലെങ്കിൽ നമ്മൾ നോളേജ് നമ്മുടെ റിസേർച്ച് സെൻ്റർസ് ഒക്കെ കൂടുതലായിട്ടാണെങ്കിലും അതേപോലെ ഇപ്പം ആയിക്കൊണ്ടിരിക്കണത് അപ്പം അവിടെയാണെങ്കിൽ ഒരോരോ റിസേർച്ചും കാര്യങ്ങളും നമ്മളുടെ സ്പേസിലേതും മറ്റ് എന്താ ഗ്രഹങ്ങളിലേതും ഒക്കെ ഓരോ കാര്യങ്ങളും റീസേർച്ച് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ഓരോ ഇൻഫൊർമേഷൻസ് ഒക്കെ അവരിങ്ങനെ അപ്ലോഡ് ചെയ്തു തരാറുണ്ട് നമുക്കാണെങ്കിൽ ഇൻ്റർനെറ്റിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിലൂടെയാണ് എനിക്കങ്ങനെ മറ്റു ഗ്രഹങ്ങളിൽ ബാഹ്യ ജീവൻ ഉണ്ടെന്നുള്ള കരുതുന്നത് മാർസിൽ ആണെങ്കിൽ വെള്ളം കണ്ടു അപ്പോൾ നമുക്ക് അവിടെ വെള്ളം കണ്ടതുകൊണ്ട് നമുക്കാണെങ്കിലും അവിടെ ഇങ്ങനെ ജീവൻ ഉണ്ട് അല്ലെങ്കിൽ മറ്റ് എന്താ ബാഹ്യ ജീവൻ ഉണ്ടെന്ന് നമുക്ക് കരുതുന്നുണ്ട് പക്ഷെ അതൊക്കെ സത്യമാണോ എന്നുള്ളതും നമുക്ക് പൂർണമായിട്ടും നമുക്കതിനൊരു ഉത്തരം അല്ലെങ്കിൽ നമുക്ക് അറിയില്ല എങ്കിൽ പോലും അവരതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ച് അല്ലെങ്കി അതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ട് റീസേർച്ച് ഒക്കെ നടത്തി നമ്മളിങ്ങനെ ഓരോ ഇൻഫൊർമേഷൻസിലൂടെയാണ് നമ്മളിതൊക്കെ അറിയുന്നതും ഇതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള രീതികളൊക്കെ നമുക്ക് മനസ്സിലാവുന്നതും ചെയ്യുന്നതും ആ ഒരു രീതിയിലാണ് എനിക്ക് ഇവിടെ മറ്റ് ബാഹ്യ ജീ ജീവനുണ്ടെന്ന് നമ്മൾ കരുതുന്നത്